വളരെ മോശ അഭിപ്രായമാണ് നമുക്കുള്ളത് ഈ തൊഴിലിലായ്മയും ദാരിദ്ര്യവും ഈ കുറ്റകൃത്യങ്ങൾ കൂടാൻ വളരെ ശക്തിയായിട്ട് ഇതിൽ ഉൾപ്പെടുന്ന സംഭവമാണ് എന്നുവെച്ചാൽ ഈ തൊഴിലില്ലാത്ത തൊയിലില്ലായ്മ ഇതിനെങ്ങനെ ബാധിക്കുന്നുവെന്നു പറഞ്ഞാൽ ഈ തൊഴിലില്ലാത്തവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ചായങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ പൈസകളിറക്കുന്നു തട്ടിപ്പറിച്ചും അതേപോലെ പൊത്തിപ്പറിച്ചൊക്കെ വാങ്ങും അതേപോലെ ഭീഷണിപ്പെടുത്തി കൊണ്ടൊക്കെ ഇതുപോലൊക്കെ വന്ന് പൈസ വാങ്ങും ഓർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ ചെയ്തിട്ട് ഇതിനിടയിൽ ഇവർ തട്ടിപ്പറിക്കുന്നതിനിടയിലൊക്കെ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ഇവർ ചിലപ്പോൾ ഓനെ കൊല്ലും അറിയാതെയാണെങ്കിലും കൈ അബദ്ധങ്ങളായിട്ടൊക്കെ ചിലപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ സാധാരണക്കൊരു കേൾക്കണ സംഭവമാണ് പിന്നെ ഈ ദാരിദ്ര്യം എങ്ങനെയാണ് ഈ കുറ്റകൃത്യങ്ങൾ കൊഞ്ഞേഞ്ഞെ ബാധിക്കുന്നുവെന്നു പറഞ്ഞാൽ ഈ ഭക്ഷണം കിട്ടാത്ത സാഹചര്യങ്ങൾ ഇവർ പോയിട്ട് നാട്ടുകാരുടേന്ന് ഇതേപോലെ ആൾക്കാരുടെ കൈയ്യിൽ നിന്നൊക്കെ പൈസ തട്ടിപ്പറിച്ച് അവരാ പൈസക്ക് ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കും പിന്നേ ഈ അമിതമായ ലഹരി ഉപയോഗങ്ങൾക്കാരണം ഇതേപോലെ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇവരീ കഞ്ചാവ് മയക്കു മരുന്ന് അടിച്ചു കയറ്റി ഇവർ എന്നാൽ ആൾക്കാരെ ഉപദ്രവിക്കാൻ ഇപ്പം തല്ലാനും കൊല്ലാനൊക്കെ അവർ തുടങ്ങും